ഹായ് ലീനാ ഹായ് നിങ്ങളുടെ ജോലി പൊടിമില്ലാണല്ലോ നിങ്ങള്ക്ക് സ്വന്തമായിട്ട് അതെ അത് എങ്ങനെ പോകുന്നു അതിനേക്കുറിച്ചൊന്നു വിശദീകരിക്കാമോ തൊഴിലിനെക്കുറിച്ച് ആ ഞങ്ങൾ മുളക് മല്ലി മഞ്ഞൾ കാപ്പിക്കുരു എന്നിവയാണ് ഇവിടെ നമ്മൾ പൊടിച്ച് കൊടുക്കുന്നത് മുളക് മല്ലിയും നമ്മൾ നന്നായിട്ട് കഴുകി വാരി ഉണങ്ങി പൊടിച്ചിട്ട് അത് പായ്ക്ക് ചെയ്തു കൊടുക്കുന്നു പിന്നെ കൂടാതെ കാപ്പിക്കുരു നമ്മൾ വറുചട്ടിയില് കൊണ്ടുപോയി വറുത്തെടുത്തിട്ട് കാപ്പിക്കുരുവും ഉലുവ അതിന്റെകൂടെ പിന്നെ കുറച്ച് ഏലയ്ക്ക എല്ലാംകൂടെ ചേര്ത്ത് അതും പൊടിച്ചേച്ച് നമ്മൾ നമ്മുടെ മില്ലില്ത്തന്നെ പൊടിച്ച് വറുത്ത് അത് പായ്ക്ക് ചെയ്ത് കൊട്ക്കുന്നുണ്ട് പിന്നെ സാധാ മുളക് മിക്സ് ചേര്ത്തത് പിരിയന് മുളക് പിന്നെ മല്ലിപ്പൊടി മഞ്ഞള്പ്പൊടി പുട്ടുപൊടി അവലോസ്പൊടി അങ്ങനെ എല്ലാ എല്ലാവിധ ഐറ്റംസും നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ആ അവലോസുണ്ടയൊക്കെ ഓഡറ് വരുന്നതനുസരിച്ച് നമ്മളതും ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയില്ത്തന്നെ അത് പോകുന്നുണ്ട് സാധാ മുളക് നമ്മൾ കാൽ കിലോ എണ്പത് രൂപ പിരിയന് മുളക് അതായത് കാശ്മീരി മുളക് അത് നമ്മൾ കാൽ കിലോന്റെ പായ്ക്കറ്റ് നൂറ്റമ്പത് രൂപ പിന്നെ മിക്സ് ചെയ്തത് കാൽ കിലോയ്ക്ക് നൂറ്റിയിരുപത് രൂപ എന്ന നിരക്കിലാണ് കൊടുക്കുന്നത് പിന്നെ തരി പുട്ട്പൊടി ചെമ്പാ പുട്ട്പൊടി അങ്ങനെ അതും നമ്മൾ സെപ്പ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടിയപ്പപ്പൊടി ആണെങ്കിലും നമ്മൾ കാൽ കിലോ അരക്കിലോയുടെ പായ്ക്കറ്റും ഒരു കിലോയുടെ പായ്ക്കറ്റുമാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പുട്ട്പൊടിയും ഇടിയപ്പപ്പൊടിയൊക്കെ നമ്മൾ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ നിരക്കിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്